ഇപ്പോൾ എൻ്റെ അടുത്തുള്ള കോളേജുകളിലൊക്കെ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി പൊളിറ്റിക്സ് സോഷ്യോളജി അങ്ങനത്തെ ഡിഗ്രി കോഴ്സുകൾ ഒക്കെയാണ് ഉള്ളത് പിന്നെ എഞ്ചിനീയറിങ് കോഴ്സുകളായിട്ട് സിവിൽ എഞ്ചിനീയറിങ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് പിന്നെ എന്താണ് പറയുക അങ്ങനത്തെ എഞ്ചിനീയറിങ് കോഴ്സുകളൊക്കെ വേറെ വരുന്നുണ്ട് പിന്നെ എന്താണ് വെച്ചാൽ ബി ബി എ വിത്ത് ടൂറിസം അങ്ങനത്തെ കോഴ്സുകൾ ഒക്കെയാണ് പൊതുവേ നമ്മുടെ എന്താണ് പറയുക മേഖലയിലുള്ള കോളേജുകളിലൊക്കെ വരുന്ന കോഴ്സുകൾ എന്നാൽ ഇപ്പോൾ നഴ്സിംഗ് പോലെ ഉള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നതിന് കുട്ടികൾ കൂടുതലായിട്ടും അന്യ നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് മൈസൂർ ബാംഗ്ലൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഒക്കെയാണ് നഴ്സിംഗ് കാരങ്ങളൊക്കെ പഠിക്കുന്നതിനൊക്കെയായി പോകുന്നത് ഇപ്പോൾ കൂടുതൽ എന്താണ് പറയുക നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കേരളത്തിൽ ഉള്ളതിൽ വയനാട്ടിൽ ഉള്ളവരൊക്കെ കൂടുതലായിട്ടും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് വയനാട് കോഴിക്കോട് അങ്ങനെയുള്ളവരൊക്കെ ബാംഗ്ലൂർ മൈസൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഒക്കെയാണ് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് നഴ്സിംഗ് പിന്നെ ഏവിയേഷൻ കോഴ്സുകൾ അങ്ങനത്തെയൊക്കെ പഠിക്കാനൊക്കെ അവിടേയ്ക്ക് ഒക്കെയാണ് പോകുന്നത് എന്നാലും പുറത്ത് കേരളത്തിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കോളേജുകളിലൊക്കെ വന്നിട്ട് ഡിഗ്രി എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴ്സുകളൊക്കെ ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്നത്